നവജാത ശിശു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി എല്ലാ തരത്തിലും ഉള്ള രോഗത്തോടും അവരുടെ ചുറ്റും ഉള്ള അന്തരീക്ഷത്തോടും ഭയങ്കര സെൻസിറ്റീവ് ആയത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അതില് ഏറ്റവും പ്രധാനപെട്ടത് ശുചിത്വം തന്നെയാണ് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ അവരുടെ വസ്ത്രങ്ങൾ ഒക്കെ ഡെറ്റോൾ അല്ലെങ്കിൽ അതുപോലുള്ള ക്ലീൻസിങ് ഏജൻറ്റുകൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി ഉണക്കി സൂര്യ പ്രകാശം തട്ടിച്ച് ഉണക്കിട്ട് തന്നെ പിന്നീട് തേക്കാൻ കൊടുക്കണം അതുപോലെ തന്നെ അവര് കിടന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കണം അതുപോലെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ആണെങ്കിലും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പോഷക ആഹാരങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവരുടെ ശുചിത്വം നല്ല രീതിയിൽ പോയാൽ തന്നെയാണ് അവര് രോഗാവസ്ഥയിൽ ഒന്നും എത്താതെ നല്ല ആരോഗ്യവാനായിട്ട് വളരാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തില് പാത്രം ഭക്ഷണം കൊടുക്കുന്ന പാത്രം നന്നായി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ പാലൊക്കെ കൊടുക്കുന്ന പാൽകുപ്പിയാണെങ്കിൽ ചൂട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നവജാത ശിശുവിൻ്റെ ശുചിത്വത്തിനായി ശ്രദ്ധിക്കേണ്ടവ